എനിക്ക് നെയ്യാനും തുന്നാനും ഇഷ്ടമാണ് നെയ്യുക എന്ന് പറയുമ്പോൾ ക്രോഷ്യോ അത് ആ സ്റ്റിച്ചാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് അതിൽ പലതരം ഡിസൈന് പല കളറ്കൾ വെച്ച് കൊണ്ട് ചെയ്തിട്ടുണ്ട് അത് കൂടുതലായിട്ടും ഇങ്ങനെ നമുക്ക് ഇപ്പം ഒരു ടേബിള് ക്ലോത്തായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ അലങ്കാരത്തിനായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പൂക്കളായിട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരെ കളറ് കൊണ്ട് തന്നെ പൂക്കളാക്കി ആ പൂക്കളെ ജോയിൻ ചെയ്ത് ഒരു ഒരു വിരി പോലെ അല്ലെങ്കിൽ ഒരു ടേബിൾ ക്ലോത്ത് പോലെയൊക്കെ ആക്കാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതല്ലാതെ തന്നെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് ഒരു ഒരേ ഒരു മാറ്റ് അല്ലെങ്കിൽ ഒരു വിരിപ്പ് തന്നെ അതിങ്ങനെ പല കളറുപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഒറ്റ നൂല് കൊണ്ടത് ഒറ്റ നൂൽ അല്ലാതെ പല കളറിട്ട് കൊണ്ട് ചെയ്ത് ചെയ്യാൻ പറ്റും അത്പോലെ തന്നെ ആ അത് പല ഷേപ്പിൽ ചെയ്യാൻ പറ്റും പല വലിപ്പത്തിൽ ചെയ്യാൻ പറ്റും അതിപ്പം ഞാൻ അത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അത് മടുത്ത് എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അതവിടെ വെച്ച് നിർത്തി അത്രയും സൈസ് മതി എന്ന് തോന്നും പിന്നെ ഇനി എനിക്ക് അതൊന്ന് വേറൊന്ന് കൂടി അതിന്റെ വലുപ്പം കൂട്ടണം എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ സാധാരണ ഗതിയിൽ ചെയ്യാറുള്ളത് വേറെ ഒരു കളർ നൂലെട്ത്തിട്ട് ആ നൂലിൽ ഇതിങ്ങനെ ചെയ്യും എന്ന് പറയുമ്പം ആ ചെയ്ത ഡിസൈൻ തന്നെ വേറെ കളറുപയോഗിച്ച് ചെയ്യും അപ്പം അതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടിയായി അതിൻ്റെ ഒരു വലുപ്പം കൂടി കൂടും ഇനി അതും കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഞാൻ മടുത്തു എന്നാണെങ്കിൽ ഈ പറഞ്ഞത് പോല തന്നെ ഞാൻ അതവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് അടുത്ത ഘട്ടം എനിക്ക് എപ്പോഴെങ്കിലും എന്നെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തത് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഞാൻ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും കണ്ടിന്യൂ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെയും കളറ് പ്പതൊരു മാച്ചിങ്ങായിട്ടുള്ള കളറ് ഞാൻ അത് സെലക്റ്റ് ചെയ്യും അതിന് വേണ്ട അത്യാവശ്യം വേണ്ട നൂലുകൾ പിന്നെ ക്രോഷിയോയുടെ അളവ് ആ നൂലിയോ സൂചിയുടെ അളവനുസരിച്ചുള്ള സൂചികൾ പലതരം എൻ്റെ കയ്യിലുണ്ട് അതെനിക്ക് ഒത്തിരി ഇഷ്ടം ഉള്ള ഒരു കാര്യമാണ് പിന്നെ പിന്നെ തുണി കൊണ്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ടൗവല് പോലെയുള്ള ഒരു തുണി നമുക്ക് മേടിക്കാൻ കിട്ടി അപ്പം അത് ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ അത് എനിക്ക് ഇഷ്ടമാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് അതും പല ഡിസൈന്കൾ അത് നോക്കി ചെയ്യണം തന്നെയായിട്ടങ്ങനെ ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ഡിസൈൻ കണ്ടിട്ട് ആ ഡിസൈൻ വെച്ചിട്ട് അത്പോലെ തന്നെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ഞാൻ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അതിങ്ങനെ ടേബിള് ക്ലോത്തായിട്ടോ അപ്പം അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ഒരു ഡെക്കറേഷനൊക്കെ വേണ്ട സമയത്ത് അതിങ്ങനെ നല്ല പോലെ പ്രൊജക്റ്റ് ചെയ്ത് കാണാവുന്നത് പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ പല്ല് പില്ലോ കവറ്കൾക്ക് ഡിസൈൻ ചെയ്യാനും ഒക്കെ ഈ പറഞ്ഞ ക്രോസ് സ്റ്റിച്ച് ഇഷ് ഇന്ന് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട് അതിനാണെങ്കിൽ തുണി നമുക്ക് ക്രോസ് സ്റ്റിച്ചിൻ്റെ തുണീന്ന് പറയുന്നത് അവൈലബ്ളാണ് അവൈലബ്ളായിട്ടുള്ള ആ തുണി വാങ്ങിച്ചിട്ട് പല കളറിലുള്ള നൂലുകൾ എന്റെ കയ്യിലുണ്ട് ആ നൂല് വെച്ചിട്ട് ഞാൻ ചെയ്ത് തീർക്കുകയാണ് ചെയ്യാറുള്ളത് ആ പിന്നെ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ടൗവ്വലിൽ തന്നെ വേറൊരു രീതിയിൽ ഉള്ളത് നോർത്തിൽ നിന്ന് പഠിച്ചാൽ എന്ന് പറയുമ്പം ഈ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പഠിച്ചിരുന്ന സമയത്ത് താമസിച്ചിരുന്ന സമയത്ത് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളതാണ് അത് അവിടുത്തെ ആളുകൾക്ക് അത് വളരെ സിമ്പ്ളായിട്ട് അതവർ കാലാവസ്ഥ അനുസരിച്ച് അവർ ചെയ്തോണ്ടിരുന്ന ഒരു വർക്കാ അപ്പം അത് ഞാൻ അവരിൽ നിന്ന് ചെയ്ത് പഠിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെയൊരു ഒരു ഫ്രെയ്മിൽ നൂല് ചുറ്റിയിട്ട് അത് നമുക്ക് അത് ചെയ്യാന്ന് പറയ്ന്നത് അത്ര ഈസിയായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഈ നോർത്തിന്ത്യൻസിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പഞ്ചാബികളായിട്ടുള്ളവർ അവർക്കാണത് ഏറ്റവും താല്പര്യമായിട്ടവർ അത് ചെയ്തോണ്ടിരിക്കുന്നത് അവർ ഇങ്ങനെ എനിക്ക് അത് ഫ്രെയിം ചുറ്റി തരും പിന്നെ ഞാൻ അത് കെട്ടി എടുക്കും കെട്ടിയെട്ക്കാന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ പല ഡിസൈന്കൾ കൊടുക്കാവുന്ന പാകത്തിന് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം അത് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ തുന്നുക എന്ന് പറയുമ്പം മിഷിൻ തുന്നൽ എനിക്ക് ചെയ്യാറില്ല ചെയ്യാൻ ഇഷ്ടമില്ല എംബ്രോയിഡറി ഹാൻഡ് എംബ്രോയിഡറി സാധാരണ ക്ലോത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എന്നാ ചുരിദാറത് പോലെയൊക്കെയുള്ള മെറ്റീരിയൽസിൽ ഞാൻ അത് ചെയ്യാറുണ്ട് അത് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പണിയാണ് പല ഡിസൈന്കൾ ഞാൻ അത് നോക്കി ചെയ്യും നോക്കി ചെയ്യാൻ ഔട്ട്ലൈനിട്ടിട്ട് അതിനെ ചെയ്യുവാണ് ചെയ്യുന്നത് പിന്നെ ആ അത് ടവലായിട്ട് വാങ്ങാം പിന്നെ ഡ്രെസ് മെറ്റീരിയൽസിനിപ്പം ചുരിദാറിൻ്റെ കഴുത്ത് അല്ലെങ്കിൽ കൈക്ക് അല്ലെങ്കിൽ അവിടെ ഡൗൺ സൈഡങ്ങനെ എവിടേലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടും ഞാൻ അത് ചെയ്യാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാൻ മറ്റ് തുന്നൽ പണികൾ ഒന്നും ഇല്ല പിന്നെ എന്തെങ്കിലും ഡ്രസ് മെറ്റീരിയൽസൊക്കെ നമുക്ക് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കുകയോ ഒന്ന് അങ്ങനെയൊക്ക ചെയ്യണം എങ്കിൽ അത്യാവശ്യം കട്ട് ചെയ്ത് എടുക്കാനും അതിൻ്റെ ആ ഒരു ഷേപ്പൻസരിച്ച് ചെയ്യാനൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് അതിന് സാധിക്കാറുണ്ട് എന്തായാലും തുന്നൽ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടം ഉള്ള ഒരു ഒരു ഒരു ഹോബി പോലെ ഞാൻ കൊണ്ട് നടക്കുന്നതാണ് അത് എത്ര സമയം വേണമെങ്കിലും മടുപ്പില്ലാതെ ഞാൻ ഇരുന്ന് ചെയ്യുകയും ചെയ്യും എനിക്ക് അതിഷ്ടമായിട്ട് താല്പര്യത്തോടെ ഞാൻ അത് ചെയ്തോണ്ട് പോവയാണ് ചെയ്യുന്നത് തുടർന്നും അതങ്ങനെ തന്നെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് പിന്നെ അതിന് പബ്ലിസിറ്റിക്കായിട്ട് മറ്റൊന്നും ചെയ്യാറില്ല എൻ്റെ കൂട്ട്കാരൊക്കെ വന്ന് കാണുമ്പോൾ അവർ ഇങ്ങനെ ഇതെങ്ങനെ ചെയ്തു എന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അത് വിവരിച്ച് കൊടുക്കാൻ അങ്ങനെയൊക്കെ ആണ് ചെയ്യാറുള്ളത്